ഞാൻ ഒരു ഫോൺ എടുത്തിട്ടുണ്ട് ഐഫോൺ ഫോർട്ടീൻ പ്രോയാണ് ഫോണിൽ രണ്ട് സിം സപ്പോർട്ട് ആവും അതുപോലതന്നെ ബാറ്ററി പവർ നല്ലോണം ഉണ്ട് ചാർജറ് നല്ല വാട്സ് ഉള്ള ചാർജർ ആണ് സി ടൈപ്പ് ആണ് വരുന്നത് അത് കമ്പനി തന്നെ പൗച്ചും വരുന്നുണ്ട് ഐഫോണിൻ്റെ കമ്പനിയിൽ തന്നെ പൗച്ചും വരുന്നുണ്ട് പിന്നെ അതിന് നെറ്റ് ഒക്കെ നല്ല ഇത് ആണ് ഫോർ ജി അല്ല ഫൈവ് ജി ആണ് എടുത്തിരിക്കുന്നത് ഫോർ ജി അല്ല ഫൈവ് ജി പ്ലസ് ആണ് ഫൈവ് ജി ഉണ്ട് ഫോർട്ടീൻ മാക്സ് പ്രോയാണ് നല്ല ഫോൺ ആണ് അതുപോലതന്നെ അതിന് ചാർജ് കുറേ നിൽക്കുന്നുണ്ട് പിന്നെ ക്യാമറ എനിക്ക് ഒരു മകൻ ഉണ്ട് മകൻ്റെ ഫോട്ടോ എടുത്തപ്പോൾ ക്യാമറയിൽ മോനെ കറക്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് മകന് പത്തു വയസ്സേ ഉള്ളൂ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് മകനാണെങ്കിൽ ഗൂഗിൾ മീറ്റും കാര്യങ്ങളും ഗെയിംമിങ്ങ്സൊക്കെ കളിക്കാനും എല്ലാം നല്ല ക്ലിയർ ആണ് പബ്ജി ഒക്കെ കളിക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് ലാഗ് അടിക്കുന്നില്ല കോൾ ചെയ്തിട്ടൊക്കെ നമുക്ക് കളിക്കാൻ പറ്റും ലാഗ് അടിക്കില്ല